ഹലോ ആരായിരുന്നു ഹലോ ആരായിരുന്നു ആ അതെ അതെ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇതെവിടെയാണ് സ്ഥലം എവിടെയാണ് എന്തോ കട്ടപ്പന ഓക്കെ ഏത് ന്യൂസ് പേപ്പറിനു വേണ്ടിയായിരുന്നു ഞാൻ നോക്കിയിട്ട് മലയാള മനോരമ അത്യാവശ്യം സെയിലുള്ള പേപ്പറാണ് പിന്നെ ദേശാഭിമാനി പിന്നെ മാതൃഭൂമി ഇതൊക്കെയാണ് മെയിനായിട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ താല്പര്യങ്ങൾ പോലിരിക്കും പിന്നെ കുഴപ്പം ഇല്ലാത്തതെന്നു പറഞ്ഞാൽ മലയാള മനോരമ കുഴപ്പമില്ല വേറെ കമ്പ്ലെയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു പത്രമാണ് അപ്പം മിനിമം ചാർജ് മിനിമം ചാർജ് ആറ് രൂപ ഈ ആ അതാദ്യം ആദ്യമേ ആദ്യമേ അങ്ങനെയാണെങ്കിൽ അഡ്വാൻസ് ചെയ്യേണ്ടി വരും

അഡ്വാൻസ് ചെയ്തോളൂ ആയിരം രൂപ ആയിരം രൂപ മതിയാകും ആദ്യത്തെ മൂന്നു മാസം ആദ്യത്തെ മൂന്നുമാസത്തേക്കുള്ള പൈസയാണീ ആയിരം രൂപയെന്നു പറയുന്നത് പിന്നെ അഞ്ഞൂറ് രൂപ മതി ആ ഇത് കറക്റ്റ് കറക്റ്റ് കറക്റ്റ് സ്ഥലം എവിടെയാണെന്നൊന്നു പറയാമോ മ്മ് കട്ടപ്പന സ്ഥലം വേറെ കട്ടപ്പനയിലെവിടെയാണ് കോളേജ് ജംഗ്ഷനല്ലെ വീട്ടു പേരെന്താണ് ആണല്ലേ ആ ഡീറ്റെയിലൊന്നു പറയാമോ ഒന്ന് നോട്ട് ചെയ്യാനാണ്

ആ ഡീറ്റെയിൽസൊന്നു പറയാമോ ആ പറഞ്ഞോ നടുപ്പുറം ഹൗസ് ആ കോളേജ് ജംങ്ഷൻ ഓക്കെ ഫോൺ നമ്പർ കൂടൊന്നു പറയാമോ

തൊണ്ണൂറ്റാറ് അൻപത്താറ്

എഴുപത്തെട്ട് പന്ത്രണ്ട് ആ ഓക്കെ ഞാൻ രാവിലെ നാളെ മുതൽ രാവിലെ ഇട്ടോളാം കേട്ടോ എന്നു തൊട്ടാണ് വേണ്ടത് ആണല്ലേ ആ ഓക്കെ ഞാനെങ്ങനെയാണെന്നു വെച്ചാൽ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ വിളിച്ചേരെ ഞാൻ നാളെ തൊട്ട് ഇടാൻ പറഞ്ഞോളാം ഓക്കെ ഓക്കെ